നമുക്ക് പ്രാദേശികപത്രങ്ങള് അനവധിയായി അനവധി തന്നെയാണ് അനവധി പത്രങ്ങള് നമുക്ക് പ്രാദേശികമായി ലഭിക്കുന്നുണ്ട് ഇവയിലൂടെ നമുക്ക് അന്നന്നത്തെ ദിവസങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാന് സാധിക്കുന്നുണ്ട് പുതിയ പുതിയ കണ്ടെത്തലുകളായാലും പുതിയ പുതിയ രീതിയിലുള്ള വിദ്യാഭ്യാസങ്ങളെക്കുറിച്ചായാലും ആരോഗ്യത്തെക്കുറിച്ചായാലും രോഗങ്ങളെക്കുറിച്ചായാലും പുതിയ പുതിയ കാര്യങ്ങളെല്ലാം വരുന്നതെല്ലാം നമ്മളാദ്യം മനസ്സിലാക്കുന്നത് പ്രാദേശിക പത്രങ്ങളിലൂടെയാണ് നമ്മുടെ നാട്ടിലെ ആദ്യമേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നത് പത്രങ്ങളിലൂടെത്തന്നെയാണ് പത്രം വായിക്കുന്നതിലൂടെ നമുക്ക് വായനാശീലം വര്ദ്ധിക്കുന്നുണ്ട് നമുക്ക് ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത് നമ്മൾ പത്രത്തിൽ കൂടെത്തന്നെയാണ് ഇപ്പോൾ ആധുനിക സാങ്കേതികവിദ്യ വന്നതിലൂടെ നമുക്ക് സമൂഹമാധ്യമങ്ങള് ഒട്ടനവധി തന്നെയുണ്ടെങ്കില്ത്തന്നെയും ഇന്നും വായന ഇഷ്ടപ്പെടുന്നവർ പ്രാദേശിക പത്രങ്ങളെ തന്നെയാണ് അശ്രയിക്കുന്നത് ഈ പ്രാദേശിക പത്രങ്ങള് നമുക്ക് സമൂഹമാധ്യമങ്ങളിലൂടെ വരുന്ന പുതിയ പുതിയ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ആദ്യം നമുക്ക് അറിയിപ്പ് തരുന്നതും നമ്മൾ പത്രങ്ങൾ തന്നെയാണ് പത്രങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരോ പ്രകൃതി ദുരന്തങ്ങൾ വരുന്നതായാലും പുതിയ രീതിയിലുള്ള സ്റ്റാട്ടപ്പുകൾ തുടങ്ങുന്നതിനെക്കുറിച്ചായാലും എല്ലാം നമ്മളാദ്യം മനസ്സിലാക്കുന്നത് പത്രങ്ങളിലൂടെത്തന്നെയാണ് പത്രങ്ങൾ വായിക്കുന്നതിലൂടെ നമുക്ക് വായനാശീലം വളരുന്നു വര്ധിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ അടുത്ത തലമുറയെ വായനാശീലത്തിലൂടെ വളര്ത്തുന്നതിനു വളര്ത്താന് വേണ്ടി നമുക്ക് സഹായകരമാണ് പത്രവായന ഒരിക്കലും അത് നിര്ത്തി നിര്ത്താതെ ഇപ്പോഴും തുടര്ന്ന് പോവുന്ന ഒരുപാട് അനവധി ഒട്ടനവധി കുടുംബങ്ങൾ തന്നെയുണ്ട് നമുക്ക് പത്രം വരുന്നതിലൂടെയാ പത്രം വായിക്കുന്നത്തിലൂടെത്തന്നെയാണ് നമുക്ക് ഓരോ പേജുകൾ തന്നെയുണ്ട് പ്രാദേശികം ഉണ്ട് പിന്നെ കായിക പേജുണ്ട് പിന്നെ ആ അങ്ങനെ വര്ത്തമാന പേജുണ്ട് അങ്ങനെ കുറേ പേജുകൾ തന്നെ നമുക്ക് പത്രങ്ങളിലൂടെ തന്നെ നമുക്ക് കാണാന് സാധിക്കും അത് അവരെ കുറച്ചുള്ള വിഷയങ്ങൾ അതാത് വിഷയങ്ങൾ അതാത് പേജിൽ നമ്മൾക്ക് വായിച്ച് എടുക്കാം മനസ്സിലാക്കാനും സാധിക്കുന്നതാണ് നമുക്ക് പുതിയത് പുതിയത് നമ്മുടെ നാട്ടിൽ വരുന്ന പുതിയ പുതിയ പുതിയ സ്റ്റാട്ടപ്പുകളായാലും കമ്പനികളായാലും യുവാക്കള്ക്കുള്ള തൊഴിലവസരങ്ങൾ ഒക്കെ ആണെങ്കില്ത്തന്നെയും വിദേശത്ത് പോകാനായി ആഗ്രഹിക്കുന്നവര്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായാലും പുതിയതായിട്ട് പഠിക്ക് വിദേശത്ത് പോയി പഠിക്കാനായാലും ജോലി ചെയ്യാനായാലും ഒക്കെ ഉള്ള അവസരങ്ങളൊക്കെ കാത്തിരിക്കുന്നവര്ക്ക് വേണ്ടിയിട്ട് വളരെ അധികം ഉപയോഗപ്രദമായിട്ട് തന്നെ നമുക്ക് പത്രത്തെ കാണാവുന്നതാണ് പത്രത്തിലൂടെ വരുന്ന ഒരുവിധം പെട്ട വാര്ത്തകളിലൂടെയാണ് നമ്മളിതെല്ലാം മനസ്സിലാക്കിയെടുക്കുന്നത് അതുമാത്രമല്ല പ്രാദേശിക പത്രം ഓരോ ഓരോരോ മതവിഭാഗങ്ങള്ക്ക് തന്നേ ഓരോ പത്രങ്ങളവർ ഇടുന്നതുകൊണ്ട് ആ അത് ആ വിഭാഗത്തിലൂടെ അവരവരുടെ മതവിഭാഗങ്ങളെ കുറിച്ചോരൊ എന്നാൽ നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കാന് സാധിക്കും ഉദാഹരണത്തിന് ക്രിസ്ത്യാനികളുടെ ആ മതവിശ്വാസികൾ ഓരോ പത്രം ഇടുമ്പോഴത്തേക്കും പുതിയ അച്ചന്മാരേയും പള്ളികളേക്കുറിച്ചും പിന്നെ പ്രാര്ത്ഥനകളേക്കുറിച്ചും ലഹരിവിരുദ്ധ കാര്യങ്ങളെക്കുറിച്ചും അവർ ചെയ്യുന്ന ഓരോരോ പ്രവര്ത്തികളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാന് സാധിക്കും അങ്ങനെ ഓരോ വിഭാഗത്തില്പ്പെട്ട പത്രങ്ങളായാലും അതവർ ആ ഓരോ അവര്ക്ക് അവരവര്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മനസ്സിലാക്കിയെടുക്കാന് സാധിക്കും പ്രാദേശിക പത്രങ്ങളിലൂടെയാണ് നമ്മൾ പൊതുവേ എല്ലാം പുതിയ പുതിയ രീതികളിലുള്ള വിദ്യാഭ്യാസമായാലും വിദ്യാഭ്യാസ രീതികളെക്കുറിച്ച് ആരോഗ്യകാര്യങ്ങളേക്കുറിച്ച് പ്രകൃതി ദുരന്തങ്ങളേക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി വരുന്നത് പത്രം നമുക്ക് വളരെയധികം സഹായകാരമാണ് പത്രം പത്രവായനയിലൂടെ വായനാശീലം വര്ദ്ധിക്കുന്നു അങ്ങനെ വളരെയധികം ഗുണകരമായിട്ടുള്ള കാര്യമാണ് പത്രവായന പ്രാദേശിക പത്രം എന്നുദ്ദേശിക്കുന്നത് പ്രാദേശികരമായ പ്രാദേശികമായ വാര്ത്തകള് നവ എത്രയും പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നതാണ് അതിന്റെ ഉദ്ദേശം തന്നെ അത് വളരെയധികം നല്ല രീതിയിൽ തന്നെ പ്രാദേശിക പത്രം നമ്മെ സഹായിക്കുന്നു അതിലൂടെത്തന്നെ നമുക്ക് വളരെയധികം അറിവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുമുണ്ട് അതിനാല് പത്രവായന ഏറ്റവും നല്ലതാണെന്ന് ഞാന് സാക്ഷ്യപ്പെടുത്തുന്നു